നവജാത ശിശുക്കള്ക്ക് വൃത്തിയുള്ള അന്തരീക്ഷം അത്യാവശ്യമാണ് കാരണം പെട്ടന്ന് അസുഖങ്ങള് പടരാന് ചാൻ സാധ്യത കൂടുതലാണ് നവജാത ശിശുക്കള് വീട്ടിലോട്ടു വരുമ്പോള് വീടിനു ചുറ്റുവശവും വെള്ളം കെട്ടിനിൽക്കാത്ത വിധത്തില് ശുചീകരിക്കേണ്ടത് അത്യാവശ്യമാണ് കൊതുകുകള് മുട്ടയിട്ടു പെരുകുന്നത് തടയണം കുഞ്ഞു നവജാത ശിശുക്കളെ എടുക്കുമ്പോൾ കൈകള് രണ്ടും സോപ്പിട്ടു കഴുകിയതിനു ശേഷം മാത്രം എടുക്കുക ജലദോഷം ചുമ എന്നീ അസുഖങ്ങള് ഉള്ളവര് കുഞ്ഞുങ്ങളെ എടുക്കാതിരിക്കുക കുഞ്ഞുങ്ങളുടെ വസ്ത്രങ്ങള് ഡെറ്റോള് പോലുള്ള മുക്കി മാത്രം ഉപയോഗിക്കുക കുഞ്ഞുങ്ങള്ക്ക് കൊടുക്കാന് ഉപയോഗിക്കുന്ന ഫീഡിംഗ് ബോട്ടിൽ അത് എന്നിവ ചൂടുവെള്ളത്തില് തിളപ്പിച്ച് കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക കുഞ്ഞു കുട്ടികളുടെ അടുത്ത് പോവുമ്പോൾ മുതിര്ന്നവര് മാസ്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും കൊതുകുകള് കൊതുകുകടി കൊള്ളാതിരിക്കാന് പ്രത്യേകം സൂക്ഷിക്കണം എപ്പോഴും വൃത്തിയുള്ള തുണികള് ഉപയോഗിച്ച് മാത്രം കുഞ്ഞു കുട്ടികളെ പൊതിഞ്ഞു സംരക്ഷിക്കുക